ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തി അനുസരിച്ച് ഇരിക്കും അതൊക്കെ നമുക്ക് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ വീടിനും ചുറ്റും കാര്യങ്ങളിൽ ചിരട്ട അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു വെയ്ക്കുക അങ്ങനെയൊക്കെ ഇപ്പോൾ വെള്ളം കെട്ടി കിടക്കുന്ന ഏതൊരു സ്ഥലത്തും കൊതുക് വന്ന് ഇതാ കൊതുകാണല്ലോ പരത്തുന്നത് അപ്പോൾ കൊതുക് വന്ന് മുട്ടയിടുന്നു അതിൽ അതുമൂലം കൊതുകുകൾ വ്യാപ കൊതുകുകളുടെ വ്യാപനം കൂടുന്നു ഇതുമൂലം ഒക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ കൂടുതലായിട്ടിത് അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ഒക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്നു മറിച്ചു കളയുക അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ പ്ലാസറ്റിക്കും കാര്യങ്ങളൊന്നും വലിച്ചെറിയാണ്ടിരിക്കുക കൂടുതലായിട്ട് എല്ലാം നമ്മൾ കളക്റ്റ് ചെയ്ത് വീട്ടിൽ തന്നെ വെക്കുക കത്തിക്കാനും കുഴിച്ചിടാനും ഒന്നും പോകരുത് അതുപോലെ തന്നെ വലിച്ചെറിയാനും നിൽക്കരുത് നമ്മൾ കളക്റ്റ് ചെയ്ത് പരമാവധി വീട്ടിൽ വെക്കുക അതുപോലെ തന്നെ കൊതുകുകൾക്ക് കൊതുകുകളുടെ വ്യാപനം നമ്മൾ തന്നെ നിർത്തുക വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് മറിച്ചു നമ്മൾ തന്നെ വൃത്തിയായിട്ട് നമ്മുടെ വീടും കാര്യങ്ങളും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക ആ അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ അസുഖങ്ങളൊന്നും വരില്ല